ഇന്ത്യയിലെ കാലാവസ്ഥയെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ കാലാവസ്ഥ ചൂടും തണുപ്പും എല്ലാം വരുന്നതാണ് ഇന്ത്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചില ചില ഭാഗങ്ങളിൽ ചൂടാണെങ്കിൽ ചില ഭാഗങ്ങളിൽ തണുപ്പ് നേരിയ തണുപ്പ് അനുഭവപ്പെടുന്ന ആ ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതല് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മഴ ഇന്ത്യയിലെ പലയിടത്താണെങ്കിലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണങ്കിലും മഴ ധാരാളമായി ലഭിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് മഴക്കെടുതികളും അനേകം ഉണ്ടാകുന്നത് ഈ ഇതുപോലുള്ള ധാരാളമായിട്ടുള്ള മഴ ചാറുന്നതിലൂടെയാണ് അങ്ങനെയും നമുക്ക് പറയാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതല് വരുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂട് ചൂടും പല രാജ്യ പല രാജ്യ ഈ ഇന്ത്യയിൽ എന്ന് പറയുന്ന രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്ന് നല്ല തോതിൽ ചൂട് അനുഭവപ്പെടുന്ന ഉണ്ട് അതുപോലെ തന്നെ തണുപ്പുള്ള തണുപ്പനുഭവപ്പെടുന്ന രാജ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനായിട്ട് പറയാനായിട്ടാണെങ്കിലും മഴയും പല പല സ്ഥലത്ത് നല്ല രീതിയില് കിട്ടുന്നുണ്ട് പല പല സ് രീതിയിലും ഒള്ള കാറ്റും മഴയും അതുപോലെ തന്നെ ചൂടും തണുപ്പുമാണെന്നുണ്ടെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ട് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഘടകം ഇതുപോലെയുള്ള കാലാവസ്ഥയിൽ നിന്ന് എല്ലാ കാലാവസ്ഥയും എല്ലാ തരത്തിലുള്ള ക്ലൈമറ്റുകളും എല്ലാ തരത്തിലുള്ള വെതറുകളും നമ്മളുടെ എന്താണ് പറയുന്നത് രാജ്യത്തുണ്ട് എന്നുള്ളത് വേറൊരു സവിശേഷതയും കൂടിയാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലും ഏത് രീതിയിലും ജീവിക്കാനായിട്ടാണെങ്കിലും ഏത് ഏത് കാലാവസ്ഥയിലും ജീവിക്കാനായിട്ടാണെങ്കിലും നമ്മളെല്ലാവരും എന്താണ് പറയുക രൂപി നമ്മളെല്ലാവരും പ്രാപ്തരാണ് അല്ലങ്കിൽ നമ്മളെല്ലാവരും അത് അഭ്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത